പാലക്കാട് ജില്ലയില് പരമ്പരാഗതമായിട്ട് കുറേ വിഭവങ്ങള് അല്ലെങ്കിൽ ഭക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് കുമ്പളങ്ങിയും ഇറച്ചിയും കല്യാണ ദിവസത്തിൻ്റെ തലേന്ന് കോഴി ഇറച്ചിയും കുമ്പളങ്ങിയും കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കി അത് ചോറിന്റെയൊപ്പം അല്ലെങ്കില് പാലക്കാടൻ മട്ട അരിയുടെ ഒപ്പം വിളമ്പുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഉള്ളത് അതുപോലത്തെ റാവുത്തർ ദം ബിരിയാണി ഇത് കേരളത്തില് പാലക്കാടില് മാത്രം കണ്ടു വരുന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആണ് ഈ ബിരിയാണീൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് അനേകം മസാല കൂട്ടുകളാൽ നിർമ്മിതമായിട്ടുള്ളൊരു ബിരിയാണി ആണ് ഇത് തമിഴ്നാടിൽനിന്നും എത്തിപെട്ടെന്നാണ് പൂർവികര് പറയുന്നത് അതുപോലെതന്നെ കേരളത്തില് ഏറ്റവും ശുദ്ധമായ അരിയിൽ നിന്നും ഉണ്ടാക്കിയ രാമശ്ശേരി ഇഡ്ഡലി ഒരു പ്രത്യേകത ആണ് പാലക്കാടിലത്തെ ഇവാങ്ങളിൽ ഒരു പ്രത്യേകത ആണ് മൺചട്ടിയിൽ മാത്രം ഉണ്ടാക്കി ആവിയിൽ ചുട്ടെടുക്കുന്ന ഇഡ്ഡലിക്ക് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു പ്രചാരണം തന്നെയാണ് കിട്ടുന്നത്